തനിക്ക് കാണാൻ കൂടുതൽ ഇഷ്ടമുള്ള സിനിമ ഏത് ഭാഷയിലുള്ളതാണ് എനിക്ക് കൊറിയൻ ഭാഷയിലുള്ള സിനിമകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ താൽപ്പര്യം കാരണം കൊറിയൻ ത്രില്ലർ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഭയങ്കര ഒന്നും പ്രതീഷിക്കാത്ത ട്വിസ്റ്റ്കളാണതിനകത്ത് സംഭവി ക്കുന്നത് കൊറിയൻ ഭാഷ നമുക്ക് അത് കണ്ടാൽ മനസിലാവില്ല എന്നുണ്ടെങ്കിലും സ സബ്ടൈറ്റിൽസ് കൊണ്ട് നമ്മളത് കണ്ട് മനസിലാക്കി അതിൻ്റ അർത്ഥം നമ്മള് മനസിലാക്കിവരുമ്പോൾ വൾ വളരെ അധികം നമുക്ക് നമ്മുടെ മൈൻറ്റിനെ ഭയങ്കരമായിട്ടും സന്തോഷിപ്പിക്കുന്ന ഒരൂ മൂവിയാണ് കൊറിയൻ ത്രില്ലർ മൂവിസ്